ഹലോ സാറേ ഞാൻ ഇവിടെ മക്കര പറമ്പ് ഭാഗത്ത് നിന്നാണ് ഈ മലപ്പുറം ജില്ലയിലെ മക്കര പറമ്പ് ഭാഗത്ത് നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സോളാർ പാനല് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീട്ടിലേക്ക് ഒരു സോളാർ പാനല് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അത് വാങ്ങിയിട്ടുള്ളത് മലപ്പുറം മലപ്പുറത്ത് തന്നെയാണ് മലപ്പുറത്ത് നിന്ന് ഒരു വലിയ ഒരു അറിയപ്പെട്ട ഒരു കമ്പനിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചത് അപ്പം ഞാൻ അതിൻ്റെ റൂഫ് കണ്ടീഷന് അതേപോലെ തന്നെ അതിൽ എത്ര എനർജി വേണ്ടി വരും എത്ര എനർജി വേണ്ടി വരും അതേപോലെ തന്നെ അതിൻ്റെ ചിലവ് പിന്നെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ ഇവരൊക്കെ അറിയാൻ ഇതൊക്കെ അറിയാൻ അറിയാനും വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് ഉണ്ട് ഇതിൻ്റെ നിരക്ക് അറിയാൻ ഇതിൻ്റെ വൈദ്യുതിൻ്റെ എത്രത്തോളം ഉല്പാദിപ്പിക്കും ഏ ഈ സൺ ലൈറ്റ് ഇതുകൊണ്ട് എത്രത്തോളം വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നു ഉള്ള അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഇതിന് നമ്മൾ അതെന്തേലും ചിലവ് എന്തേലും വേണ്ടന്ന് വെച്ചെങ്കിൽ നമ്മൾ തന്നെ ഇൻഷല്ല അത് ഏറ്റെടുത്തോളാം അതിനൊന്നും ഇല്ല ഇതൊന്നും അല്ല അതൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്തോളാം ഏറ്റെടുത്തോളാം അപ്പം ഇങ്ങൾ കഴിയണത് പോലെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ല ബെറ്റർ ആയി തോന്നിയേനെ ഓക്കെ എന്തായാലും വിളിച്ചതിന് ഞങ്ങൾ കണക്റ്റ ചെയ്തതിന് നന്ദി ഓക്കെ താങ്ക് യൂ